നെയ്ത്തെന്നു പറയുന്ന നമ്മളുടെ ഒരു ജീവിത മാർഗ്ഗമാണ് അത് എൻ്റെ ഒരു വലിയ ആഗ്രഹം എന്നു പറഞ്ഞത് പറയുന്നത് നെയ്ത്തുമായി ബന്ധപ്പെട്ട ഒരു നല്ല ഒരു നെയ്ത് എടുക്കുന്ന ഒരു സാരിയും അതുപോലെതന്നെ അതുമായി ബന്ധപ്പെട്ട് ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു ഒരു കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരു ഒന്നിച്ച് ഒരു സെക്ഷനായി ലഭിക്കാൻ പറ്റുന്ന രീതിയിലൊരു വസ്ത്രം നെയ്തെടുക്കുക എന്നുള്ളതാണ് അതായത് ഒരു സാരിയുടെ സാരിയതോടൊപ്പം ഒരു ജുബ്ബയും മുണ്ടും അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് ചെറിയ പൈജാമ ടൈപ്പ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്ക് പട്ടു പവാടയും ബ്ലൗസുമൊക്കെ നെയ്ത് ഒരു സെറ്റാക്കി അത് വിപണിയിലെത്തിക്കുക എന്നുള്ളത് അത് വളരെ നല്ല അതിനുള്ളിൽ ഭഗവാൻമാരുടെ ഹിന്ദു സമുദായത്തിൽപ്പെടുന്നവർക്കാണ് കൂടുതലും ഇത്തരത്തിലുള്ള പഴയകാല ഡ്രസ്സുകളോട് താല്പര്യം ഏറെ അതുകൊണ്ട് ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട ഹിന്ദു ഭഗവാന്മാരുടെ ചിത്രങ്ങൾ കൂടി അതിൽ നെയ്തെടുത്ത് ഒരു വസ്ത്ര രൂപമായിട്ട് നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരം നടക്കുന്ന ആഘോഷങ്ങൾ വിഷു ഓണം തുടങ്ങിയ ആഘോഷങ്ങൾക്ക് കൂടുതലായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വസ്ത്രത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി എടുത്ത് അത് കമ്പോളത്തിൽ എത്തിക്കണമെന്നുള്ളത് എൻ്റെ വലിയ ഒരു ലക്ഷ്യവും താല്പര്യവുമാണ് ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിക്കുന്നതോടൊപ്പം പണ്ട് കാലത്തെ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരും ഇപ്പോഴും നിലവിലുണ്ട് അപ്പോൾ അവർക്ക് ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ അവർ ഉപയോഗിക്കാൻ താൽപര്യപ്പെടുമ്പോൾ അവർ വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത്തരത്തിൽ വ്യത്യസ്തമാർന്ന രീതിയിലുള്ള നെയ്ത്ത് നെയ്ത് വിപണിയിലെത്തിക്കുമ്പോൾ അതിന് ആവശ്യക്കാരേറെയും ചിലവേറെയും വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതോടൊപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ജീവിത നിലവാരത്തിന് അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ഇത്തരത്തിലൊരു വസ്ത്രസമ്പ്രദായത്തേയും കൊണ്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുകൊണ്ട് അത്തരത്തിലൊരു നെയ്ത്ത് ശക്തി ഏറ്റെടുത്ത് ആ രൂപത്തിൽ എത്തിക്കാൻ വേണ്ടിയുള്ളൊരു ലക്ഷ്യത്തിലാണ് ഞാനിപ്പോഴുള്ളത് അത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പൂർത്തിയാകുന്നതിന് അടുത്ത് എത്തുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ഏകദേശം വിഷു നാളുകളാകുമ്പോഴേക്കും അത് പുറത്തിറക്കണമെന്നാണ് എൻ്റെ ഒരു വലിയ ആഗ്രഹമെന്നു പറയുന്നത് ആ ആഗ്രഹത്തോടെ ഞാൻ വലിയൊരു ലക്ഷ്യം എല്ലാവർക്കും മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ എല്ലാവരും ആ ഒരു വിപണി പിന്നെ എത്രത്തോളം മുന്നിലേക്ക് എത്തിപ്പെടുത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു